ഹലോ നേരത്തെ ഞാൻ കുറച്ചു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ രാമനാട്ടുകരയിലേക്ക് ആ അത് തന്നെ അത് തന്നെ അതെന്നെ ആ അതെ അതെ അഞ്ച് ബിരിയാണി ആ പത്ത് ഫ്രൈഡ് റൈസ് കുഴിമന്തി ഒരു ഫുൾ കുഴിമന്തി പിന്നെ ഞങ്ങൾ കുറച്ച് പിന്നെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമുക്കൊന്ന് എത്തിച്ചു തരാൻ എത്തിച്ചു തരാൻ വേണ്ടിയായിരുന്നേ അപ്പോൾ ഞാൻ പറഞ്ഞ അഡ്രസ്സ് അല്ലാ കെട്ടോ ഞാന് ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പറഞ്ഞത് അപ്പം ഞാൻ തൊട്ടടുത്ത് രാമനാട്ടുകര തന്നെയാണ് ഞാൻ തൊട്ടടുത്ത് പിന്നെ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടുന്ന് ഇങ്ങോട്ട് പോന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു അപ്പോൾ ചേട്ടൻ ജസ്റ്റ് ഇറങ്ങിയിട്ടില്ലല്ലോ ആ ഇല്ലല്ലേ അപ്പോൾ ജസ്റ്റ് ചേട്ടൻ ഒന്ന് ഇങ്ങോട് ഇങ്ങോട് കൊണ്ട് തരികയായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു എന്നാൽ ഞാൻ ലൊക്കേഷൻ ഇടട്ടെ എന്നാൽ ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ട് തരുവോ ആ എന്നാൽ ഞാൻ ലൊക്കേഷൻ അയച്ചേക്കാം കെട്ടോ ആ ഒക്കെ താങ്ക്യൂ